ഹലോ മാക്സ് ബ്യൂട്ടി പാർളർ ഗുഡ് ഈവനിങ് മാഡം അ മൂന്ന് റ്റൈപ്പ് ഉണ്ട് നോർമ ഗോൾഡനും പിന്നെ ബബ്ബിൾസ്സും ഉണ്ട്

ഈ മൂന്ന് ഫേഷ്യലിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഈ മൂന്നെണ്ണെ ഉള്ളൂ അഞ്ഞൂറിന് മേളിലോട്ടാ അ ഫോർ ഫൈ ഡേയ്സ് ഒക്കെ അതിന് ഗ്ലോ നിൽക്കും അ അ അ പിന്നെ ഇത് ചെയ്തുകഴിയുമ്പോൾ ഒത്തിരി സൺലൈറ്റ് ഒന്നും കൊള്ളാതെ രാത്രിയിലൊക്കെ നൈറ്റിലൊക്കെ ഒന്ന് നല്ല തണുത്ത വെള്ളത്തിലൊക്കെ മോന്ത കഴുകിയാൽ നല്ലതായിരിക്കും ഇതൊക്കെ ചെയ്തുകഴിഞ്ഞിട്ട് അ ഗോൾഡനോ നോർമലോ ഗോൾഡനോ ചെയ്താൽമതി ഹെയർന് എന്താ മാഡം സജറ്റ് ചെയ്ന്നെ ആ ആണ് രണ്ടും ചെയ്യാം ഫേഷ്യൽന് അഞ്ഞൂറിന് മേളിലോട്ടും സ്പായിക്കും അ ആ റേറ്റ് ഒക്കെ ആവും ഓക്കെ ഓക്കെ അ